ഞാനിന്നലെ ഓർഡറ് ചെയ്ത പ്രൊഡക്ററ് വീട്ടിലെത്തി നോക്കുമ്പോൾ കുഴപ്പൊന്നൂല്ല നല്ല നല്ലൊരു പ്രൊഡക്റ്റാണ് നല്ലൊരു മെത്തയാണത് നമുക്ക് കിടക്കുമ്പോൾ നല്ലൊരു സുഖ നല്ലൊരിത് കിട്ടുന്നുണ്ട് എന്താച്ചാല് കൈ കാല് അങ്ങനെ വേദനയൊന്നൂല്ല ചില കിടക്കകള് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഈ ഈ മെത്തയില് കിടക്കുമ്പോൾ കൈകാലുകള് വേദനയൊന്നുമില്ല നല്ലൊരു ഒരു സ്പോഞ്ച് പോലത്തെ കിടക്കയാണ് പിന്നെ അപ്പോൾ അതിനകത്തുനിന്ന് നല്ലൊരു ഒരു സുഖമാണ് അതിനകത്ത് കിടക്കാനും പിന്നെ കഴുത്തിൻ്റവിടെ വേദന ഒന്നും ഉണ്ടാവില്ല പിന്നെ കാലുവേദന കൈവേദന അങ്ങനത്തെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ അങ്ങിനേ മാറുന്ന ആ മെത്ത ഉപയോഗിക്കുമ്പോൾ മെത്ത ഉപയോഗിക്കുന്നവർക്ക് കൈകാല് വേദനയൊക്കെ മാറും അതൊരു നല്ലൊരു ഗുണ ഉള്ളൊരു മെത്ത ഒരു ഇതാണ് മെത്തയാണത്